സംഗീത പരിപാടികൾ അല്ലെങ്കിൽ സംഗീത ഉത്സവങ്ങൾ കാണുന്നതിന് വേണ്ടി വളരെ അധികം ദൂരെയൊന്നും പോയിട്ടില്ല എന്നാൽ നമ്മുടെ എവിടെയാണ് കാട്ടാക്കട പോകുന്ന വഴിയിൽ അരിമാളൂർ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു ദേവീ ക്ഷേത്രമുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ നമ്മൾ ഉത്സവം ഉത്സവം ആകുന്ന സമയത്ത് അവിടെ പോകാറുണ്ട് അങ്ങനെ പോ പോയ സമയത്തും അവിടെയൊരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു ഒരു കർണാട്ടിക് സംഗീതം ആയിരുന്നു അപ്പം അങ്ങനെ ഉള്ള സമയത്ത് നമുക്കത് കേൾക്കാനും അതിൻ്റെ ആ ഒര് ആസ്വാദനം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് യാദൃശ്ചികമായിട്ട് പോയതാണ് ക്ഷേത്രത്തിൽ തൊഴുന്നതിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ആ പരിപാടി നടക്കുകയും അങ്ങനെ കാണാൻ ഇട വരികയും ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വീടിന് തൊട്ടടുത്തായിട്ട് ഒരു ദേവീ ക്ഷേത്രമുണ്ട് അവിടെയും ഇതുപോലുള്ള ക്ലാസ്സിക്കൽ സംഗീതം ഗാനമേള ഇതുപോലെ ഒള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ കാണാനായി പോയിട്ടുണ്ട് വളരെ അധികം ആസ്വദിച്ച് കേൾക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ഇവ ഇങ്ങനെ പോയിക്കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന അതൊന്നും നമുക്കൊരു വാ ഒരു വാക്കുകൊണ്ട് നമുക്ക് പറഞ്ഞു നിർത്താൻ കഴിയുന്നതല്ല അതിമനോഹരമായിട്ടുള്ള സംഗീതം ആസ്വദിക്കാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ വളരെ അധികം ദൂരേക്കൊന്നും പോകാൻ സാധിച്ചിട്ടില്ല സംഗീത പരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ യാ അങ്ങനെയുള്ള യാത്രകളൊന്നും തന്നെ നടത്തിയിട്ടില്ല ടി വി പ്രോഗ്രാമിലൊക്കെ ഇങ്ങനെ വരുന്ന പ്രോഗ്രാമുകൾ കാണും ടി വിയിൽ വരുമ്പോൾ ആ പ്രോഗ്രാമുകൾ കാണുകയും വളരെയധികം ആസ്വാദിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മുടെ ക്ഷേത്രങ്ങളിലെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ക്ഷേത്രങ്ങളിലെ സംഗീത പരിപാടികൾ കാണുകയും വളരെയധികം ആസ്വദിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് സംഗീതമെന്ന് പറയുന്നത് അപ്പം സംഗീതമായിരുന്നാലും നൃത്തമായിരുന്നാലും ഇതൊക്കെ വളരെയധികം ഇഷ്ടത്തോട് കൂടി കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് വളരെയധികം ദൂരേക്കൊന്നും സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ അടുത്ത് തൊട്ടടുത്തുള്ള സംഗീത പരിപാടികൾ എത്രത്തോളം കേൾക്കാൻ കഴിയുമോ അത്രത്തോളം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്